ഹലോ ഇതാരായിരുന്നു എന്താ മേഡം പറഞ്ഞോളൂ എന്താണ് പ്രശ്നം എത്ര വർഷമായി മാം മൂന്ന് വർഷമോ ഓക്കെ പുള്ളിക്കാരന്റെ പേര് എന്താണ്

നിങ്ങൾ തമ്മിൽ എന്തേലും പ്രശ്നം ഉണ്ടോ അപ്പം

ആണോ ഓക്കെ ഓക്കെ മാം ഇതെന്ന് പറയുന്നത് കുറെ കേസിൻ്റെ ആണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ തുടങ്ങുന്നതിന്ന് പറയുമ്പം അതിന് കുറെ ഇയേഴ്സ് എടുക്കും ഇന്ന് നമ്മൾ ഒരാളെ കണ്ടു അയാളോട് സംസാരിച്ചു നമുക്ക് അയാളെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അയാളുടെ ക്യാരക്ടർ മൊത്തമായി മനസ്സിലാക്കാൻ പറ്റീന്നില്ല ഒരുപാട് കാലം കഴിയും തോറും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ ഇന്നോളം കാത്ത് ഇങ്ങനെ കൂടി കൂടി വരുവാണ് ഇപ്പം ഈ പറഞ്ഞ മൂന്ന് വർഷം ഇയാൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അനക്ക് മോൾക്ക് അയാളെ മോനെ ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റീട്ട് ണ്ടായിരുന്നില്ല ഡേ ബൈ ഡേയാ മനസ്സിലാക്കാൻ വരുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടി കൂടി വരുന്നതെ ഉള്ളൂ നിങ്ങൾ തമ്മിൽ ഈഗോ പ്രോബ്ലെംന്ന് പറയുന്നത് ചിലപ്പം നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ഈഗോ പ്രോബ്ലെംന്ന് പറയുന്നത് കുഞ്ഞി കുഞ്ഞി പ്രശ്നം ആയിരിക്കും അത് എന്താണ് പറയുന്ന കുറെ ഒക്കെ പറയുന്നത് ഏജിൻ്റെ ആണ് കാരണം വിട്ട് കൊടുക്കാൻ പറ്റാണ്ട് വാശി വച്ചോണ്ടിരിക്കുന്നതിന്റെ പ്രശ്നം ആണ് അങ്ങനെ ആണ് ഈ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പം മാക്സിമം ഒരു റിലേഷൻ നല്ലപോലെ ഹെൽ വെൽത്തി ആയിട്ട് മുമ്പോട്ട് പോണമെങ്കിൽ അതിനു വേണ്ടത് ഈ പറഞ്ഞ വാശിയും ദേഷ്യം ഒന്നും ഇല്ലാണ്ട് എന്താണ് ഒരാൾ തോറ്റു കൊടുക്കുക ആ അല്ലെങ്കിൽ മറ്റൊരാൾ തോറ്റു കൊടുക്കുക എന്ന രീതിയിൽ മുമ്പോട്ട് പോവുക തന്നെയാണ് വേണ്ടത് അങ്ങനെ മുമ്പോട്ട് പോയാലേ എന്നും എന്നും ഒരു റിലേഷൻ സക്സസ് ആവത്തുള്ളൂ ഞാനും പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് റിലേഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം ഞങ്ങൾ തമ്മിലും ആദ്യമൊക്കെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു എത്ര പ്രശ്നം വന്നാലും ഒരു ഞങ്ങളും മിണ്ടാണ്ട് ഇരിക്കൊക്കെ ചെയ്യായിരുന്നു പക്ഷേ മൂന്ന് നാല് മാസം കഴിയുമ്പം ഞങ്ങളന്നെ പറഞ്ഞ് സോൾവ് ചെയുമായിരുന്നു മൂന്ന് നാല് ദിവസം കഴിയുമ്പം ഞങ്ങളെന്നെ പറഞ്ഞ് സോൾവ് ചെയ്യും എന്തുണ്ടേലും ഓപ്പൺ ആയിട്ട് രണ്ട് പേരും പരസ്പരം പറയാ എന്തുണ്ടേലും പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ ഇനി അങ്ങനെ പറഞ്ഞിട്ടും രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടേതായ ലൈഫ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക ഒരിക്കലും അവരെ ഓർത്ത് വിഷമിച്ചിരിക്കരുത് ഓക്കെ

ഓ ഓക്കെ ഓക്കെ മാം നിങ്ങളിപ്പം പറയുന്നത് ഈ പറയുന്നത് ഒക്കെ ആദ്യം റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വേറൊരു പ്രൊപ്പോസൽ വന്നൂന്ന് പറഞ്ഞപ്പം ചിലപ്പം പൊസ്സസ്സീവ്നെസ്സ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ അതുകൊണ്ട് ഉണ്ടായിരുന്ന പ്രശ്നം ആയിരിക്കും പിന്നെ ചിലപ്പംന്ന് പറയുമ്പം പുള്ളിക്കാരന് പുള്ളിക്കാരൻ്റെതായ എന്തേലും ഇഷ്യൂസൊക്കെ ആയിട്ട് എന്തേലും ഫീലിൽ ഇരിക്കുവായിരിക്കും നമുക്കിപ്പം ആരുടേയും മനസൊന്നും വായിച്ചറിയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ പുള്ളിക്കാരന് വേറെ എന്തേലും നോക്കാനോ അല്ലെങ്കിൽ ഇൻ്ററസ്റ്റ് പോവോ അങ്ങനെ എന്തേലും സിറ്റുവേഷനലിൽ ആയിരിക്കും അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ലപോലെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണാൻ നേരിട്ട് കണ്ടിട്ട് ഇങ്ങനൊരു കാര്യം പറയാൻ കാരണം ഒരിക്കലും നമ്മുടെ ഭാഗത്തെ ന്യായം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വെളിപ്പെടുത്തണം കാരണം നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ലാന്ന് പറയുമെങ്കിൽ പോലും നമ്മുടെ മനസ്സെങ്കിലും ഓക്കെ ആവാൻ വേണ്ടീട്ട് നമ്മൾ അത് പറയാ അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണുക സംസാരിക്കുക സംസാരിച്ചിട്ട് ഈ പറയുന്ന ഈഗോ ഒക്കെ പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ ഇനി അവിടെ തീർന്നില്ലേ അത് അവിടെ നിർത്തീട്ട് മോളുടേതായ ലൈഫ് ആയിട്ട് മോൾ മുമ്പോട്ട് പോവുക അത്രയും ചെയ്താൽ മതി ഓക്കെ എന്തായാലും ഇതൊന്നും ഓർത്തിരുന്ന് ഫ്യൂച്ചർ കളയരുത് മുമ്പോട്ട് പോവുക നല്ലപോലെ പഠിക്കുക ഉയർന്ന ജോലി ആവുക ഓക്കെ ഓക്കെ താങ്ക് യൂ